എൻ്റെ കുടുംബത്തിലെ ഒരുപാട് ആൾക്കാര് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ തന്നെ ഒരു കൃഷിക്കാരനാണ് എന്നാൽ ഇന്ന് കൃഷി ചെയ്യുന്ന ഭൂമി നിരത്തി അവിടെ പുതിയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ തന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്ന ഇടങ്ങൾ ഒക്കെ നമുക്ക് ഒരു കടബാധ്യത കാരണം വിൽക്കുകയും അതുകൊണ്ടുതന്നെ ആ കൃഷി ഭൂമി ഇപ്പോൾ ഒരുപാട് ഒരുപാട് കൃഷിഭൂമി ഉണ്ടായിരുന്നു അതൊക്കെ നിരത്തി ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് ചിലരുടെ ഒരു അവസ്ഥയും അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവർ ചിലർക്ക് കൃഷിയോട് താല്പര്യം കുറയും ചിലർക്ക് അവരുടെ ജീവിതസാഹചര്യം കൊണ്ട് കൃഷി ഉപേക്ഷിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് കൃഷിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ കൃഷി വളരെ കുറഞ്ഞു വരികയാണ് നമുക്ക് പച്ചക്കറികളാണെങ്കിലും അതുപോലെ അരിയാണെങ്കിലും വില കൂടി വില കൂടി വരികയാണ് ഓരോ ദിവസം കൂടുന്നലും തീ വിലയിൽ കൂടുതലാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതൊന്നും വാങ്ങാനുള്ളൊരു പൈസ കയ്യിൽ ഇല്ലാതായിട്ട് വരികയാണ് ഇപ്പം വില കൂടുതലും അതുപ്പോലെതന്നെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്